സ്കൂളിലും കോളേജിലുഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ തരത്തിലുള്ള പെൻസിൽ ഡ്രോയിങ് കളറിങ് ഡ്രോ അല്ല ക ക്യാരിക്കേച്ചറങ്ങനുള്ള കുറേ മത്സരങ്ങളില് പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിളൊക്കെ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയിട്ടുള്ളതും ട്രോഫി കിട്ടിയിട്ടുള്ളതും ആയിട്ടുള്ള പരിപാടീം ചിത്രരചനയായിരുന്നു കുഞ്ഞിലേ തൊട്ടേ വരയ്ക്കാൻ ഇച്ചിരി കഴിവുള്ളതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല രീതിയില് എന്തേലും പരിപാടി വന്നാല് അതിനെല്ലാം പങ്കെടുക്കുകയും സമ്മാനങ്ങള് നേടുകയും കുഞ്ഞില് തൊട്ടേ ഒരു ഹോബിയായിരുന്നു അതുകൊണ്ടുതന്നെ പിന്നീടങ്ങോട്ടും കോളേജില്ച്ചെന്നപ്പോഴായാലും പുറത്ത് അല്ലാതെന്തൊക്കെ പരിപാടി ഉണ്ടേലും ഡ്രോയിങ്ങുണ്ടെന്ന് കേട്ടാല്ത്തന്നെ ഡ്രോയിങ് മത്സരത്തിനെല്ലാം പങ്കെടുക്കും എന്തേലുമൊന്ന് ഫസ്റ്റ് പ്രൈസ്സ് കിട്ടിയില്ലേലും സെക്കന്റോ തേഡോ അങ്ങനെ പ്രോത്സാഹന സമ്മാനം അങ്ങനെ ഏതേലുമൊക്കെ പ്രൈസ് നേടിയെടുക്കണമെന്നൊരു ചിന്ത തോന്നി അങ്ങനെ വാ ഒരു വാശി തോന്നി വാശിക്ക് പുറത്ത് ചേരുകയും ക്യാഷ് പ്രൈസ് വരെ കിട്ടുകയും മെഡലായാലും പരിപാടിക്ക് പങ്കെടുത്ത് ഏതേലൊരു പ്രൈസെങ്കിലും മിനിമം മേടിച്ചെടുക്കുന്ന രീതിയില് നല്ല രീതിയില് കല പ്രകടിപ്പിച്ച് നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് ഇവിടടുത്തെല്ലാമായാലും കുറെ കോളേജിലുണ്ട് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഡ്രോയിങ് കോളേജ് ആർട്സ് കോളേജ് അടൂരുള്ള ആര്ട്സ് കോളേജ് വളരെ നല്ലൊരു കോളേജാണ് അവിടെ കലയെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല നല്ല കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് അവടെ പഠിച്ചിട്ടിറങ്ങിയൊരു പ്ര പ്രസിദ്ധമായ കുറെ കലാകാ കലാകാരന്മാര് തന്നെ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും നല്ല നിലയില് നല്ല ഭാവിയില് നല്ല രീതിയില് ജീവിക്കുന്നവരുണ്ട് അതെല്ലാം ഒരു മാതൃകയായി വച്ചവിടെ ചേരാന് തന്നെ ആയിരക്കണക്കിനാൾക്കാരാണ് കാത്തുനില്ക്കുന്നത് അഡ്മിഷൻ കിട്ടാനും കുറച്ച് പാടാണ് ഞാനും കൊടുത്തു നോക്കിയെങ്കിലും കിട്ടിയില്ലായിരുന്നു അതിന്റെ ഒരു നിരുത്സാഹവുമുണ്ട് എന്റെ കലാജീവിത ത്തിൽ കുറച്ചുകൂടെ ഒരു ഒരു ഉയരങ്ങളിലെത്തണമെന്നൊക്കെ എനിക്കാഗ്രഹമുണ്ട് അവ നേടിയെടുക്കാനെങ്ങനെ സാധിക്കുമെന്നുള്ളതില് ഒരാകാംക്ഷയുണ്ട് എന്നാലും എനിക്കൊക്കുന്ന രീതിയിലെല്ലാം ഞാൻ നല്ല രീതിയില് എൻ എന്റെ ഉള്ളില് കല കാഴ്ചവെക്കുകയും എന്ത് മത്സരങ്ങളെന്തു വേദി കിട്ടിയാലും അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങള് മാക്സിമം നല്ല രീതിയില് ചെയ്യുകയും സമ്മാനങ്ങൾ നേടുകയും തുടർന്നുള്ള ജീവിതത്തിലും കല മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നായാരിക്കും